ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഉത്സവങ്ങളും അവധി ദിനങ്ങളും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപെട്ട നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്നതുകൊണ്ടുതന്നെ നമ്മളെ ഇന്റിപ്പെന്റൻസ് ഡേ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് പതിനഞ്ച് അതാണ് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ നമ്മളെ നമ്മൾ ആദരിക്കുന്നതും ആഘോഷിക്കുന്നതായത് പിന്നെ ഹോളിയുണ്ട് നല്ല കളറുകളാൽ നല്ല ഭംഗി ആയിട്ട് എല്ലാവരും ആ നിറവിൽ പല കളറിൽ പല ഇതിൽ വാരി വിതറി അടിപൊളിയായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മളെ ഹോളി പിന്നെയുള്ളത് നമ്മളെ പരിസ്ഥിതി ദിനം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന പ്രകൃതിയ്ക്ക് ഒരു വനം ഒരു പുതിയൊരു സസ്യത്തെയോ ഒരു മരത്തെയോ ഒക്കെ നട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം സ്നേഹിക്കണമെന്നതിൻ്റെ ഒരു ഉന്നത ഇതായിട്ട് നമുക്ക് പരിസ്ഥിതി ദിനം ആഘോഷിക്കാം അതുപോലെ ടീച്ചേർസ് ഡേ അങ്ങനെ പല ആഘോഷങ്ങളും അവധി ദിനങ്ങളും ഉണ്ട്